ഇവിടെ കംപാരിസൺന്ന് പറയുമ്പം മലയാളമെന്ന് പറഞ്ഞാൽ നമ്മുടെയൊരു നാടിൻ്റെ ഭാഷയാണ് കേരളത്തിൻ്റെ ഭാഷയാണ് ഹിന്ദീ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ കൺസർ ചെയ്യുന്നതൊരു ദേശീയ ഭാഷ എന്ന ലെവൽലാണ് അപ്പം ആ ലെവലിൽ നമുക്ക് അത് തമ്മിൽ കംപേർ ചെയ്യാൻ പറ്റില്ല പക്ഷേ എങ്കിലും ഇതിനകത്തെ സംസ്കാരത്തിൽ നമുക്ക് കംപേർ ചെയ്യാം കാരണം ഇ ഹിന്ദീ ഹിന്ദിയെക്കാലും മുമ്പേ ഒരു പക്ഷേ മലയാളം ഉണ്ടായിട്ടുണ്ടാവാം ഹിന്ദീടെ അപ്പം നമുക്ക് ഇത് കംപാർ ചെയ്യുന്ന കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നൊരു ഭാഷ ഹിന്ദിയാണ് മലയാളം എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ കേരളീയരാണത് ഉപയോഗിക്കുന്നത് അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പം നമുക്കൊരൂ ഡെയറക്ട് കംപാരിസൺ ഇല്ല എങ്കിലും ഇത് ഇന്ത്യയിലെ രണ്ട് ഭാഷകളാണ് അത് ലോകമെമ്പാടുമുള്ള മലയാളികൾ ഉപയോഗിക്കുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഇന്ത്യക്കാരും ഉപയോഗിക്കുന്നൊരു ഭാഷയാണ് അപ്പം ആ രീതീലൊരു കംപാരിസൺ ഉള്ളതല്ലാതെ ടു ഡയറക്ട് കംപാരിസം അസ് ആൻ ഇന്ത്യൻ ലാംഗ്വേജ് നമുക്ക് കംപേർ ചെയ്യാംന്നല്ലാതെ ഇത് തമ്മിലൊത്തിരി വ്യത്യാസങ്ങളുണ്ട്